സർ നമസ്തേ എൻ്റെ പേര് മധു ഞാ വിളിക്കുന്നത് ആലപ്പുഴയിൽ നിന്നാണ് കരുവാറ്റാന്ന് പറയുന്ന ദേശ് സ്ഥലത്തു നിന്ന് സാറേ എനിക്ക് കഴിഞ്ഞ ദിസവസങ്ങളായിട്ട് ഒരു ഉന്നതമായ ഒരു ഇൻറ്റർനാഷനൽ കമ്പനിയിലേക്കൊര് ജോലി മേഖല കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാസ്സ്പോർട്ടുമായിട്ടുള്ള ചില വിവരങ്ങളറിയാനാണ് ഇത് അൽജസീറ ഓഫീസല്ലേ പാസ്പോർട്ട് ഇതു ആയിട്ട് ബന്ധപ്പെട്ടെ ആ സാറേ ഇതിൻ്റെ വ്യക്തമായ കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ വളരെ ഗുണഗണമായിരിക്കും ഞാനെന്തൊക്കെ കാര്യങ്ങളാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് അവിടേക്ക് പോകേണ്ടതായിട്ടുള്ള എന്തെല്ലാം ക്രൈറ്റീരിയകളാണ് ഞാൻ മനസ്സിലാക്കി ഇരിക്കേണ്ടത് സാറൊന്ന് വിശദമായിട്ട് പറഞ്ഞുതന്നാൽ വളരെ ഉപകാരമായിരുന്നു ആ ആ സാറേ പറഞ്ഞാട്ടെ ആ ശരി